വര എന്ന് പറയുന്നത് വളരെ നൈസര്ഗികമായിട്ടുള്ള ഒരു കഴിവ് ആയതിനാലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തിക്ക് വളരെ അധികം ക്ഷമയോടെ ആവശ്യമുള്ളതിനാലും എനിക്ക് അത്തരത്തിലുള്ളൊരു നൈസര്ഗിക കഴിവോ ക്ഷമയോ ഇല്ലാത്തതിനാല് ഇത്തരത്തില് ഉള്ള ഒരു ഡ്രോയിങ് ക്ലാസോ ശില്പശാലയോ ഒന്നും എടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല എങ്കില്ക്കൂടിയും എന്റെ മകന് വളരെ നല്ല രീതിയിൽ വരയ്ക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയെ കൊണ്ട് പലതരത്തിലുള്ള ഡ്രോയിങ് ക്ലാസ്സുകള്ക്കും ശില്പ്പശാലകള്ക്കും പോവാനായിട്ടുള്ള പങ്കെടുക്കാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അതായത് ഞാന് പങ്കെടുക്കുകയില്ല അവനെക്കൊണ്ട് കൊണ്ടുവിടുകയും അതു കഴിയുന്നതു വരെ അവിടെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുമ്പോള് ചില ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള അങ്ങനെ കുറിച്ച് വരയ്ക്കുന്ന കുറച്ച് അദ്ധ്യാപകരെ പരിചയമുണ്ട് ശില്പ്പശാലകള് നടത്തുന്ന കുറച്ച് അദ്ധ്യാപകരെ പരിചയമുണ്ട് അപ്പം ആ ഒരു അനുഭവത്തില് നിന്ന് ശില്പ്പശാലകളൊക്കെ നടത്തുമ്പോള് പല സമയത്തും വളരെ കഴിവുള്ള കുട്ടികളും അതിൻ്റെയൊപ്പം തന്നെ ആഗ്രഹമുള്ള കുട്ടികളും വരാനായിട്ട് കാണാൻ കാണാനായിട്ട് സാധിക്കാറുണ്ട് ശില്പ്പശാലകൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് അതായത് പുതിയ ഒരു സാങ്കേതിക വിദ്യ അതിന്റെ ഒരു ടെക്നിക്കവർ പഠിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ശില്പ്പശാലകളും ക്ലാസ്സുകളൊക്കെ നടത്തുമ്പം ഇവരുടെ നൈസര്ഗികമായിട്ടുള്ള കഴിവിന്ന് അപ്പുറത്ത് പുതിയ ട്രെണ്ടുകളോ പുതിയ തരത്തില് വളരെ എളുപ്പത്തില് ഈ വര എങ്ങനെ മനോഹരമാക്കാം എന്നുള്ള പുതിയ കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള അറിവുകൾ ശില്പ്പശാലകളില് നിന്ന് ഇവര്ക്ക് ഇതില് താല്പര്യമുള്ള ആളുകള്ക്ക് ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്